എനിക്ക് ഫോട്ടോഗ്രാഫി മത്സരത്തിലൊക്കെ പങ്കെടുക്കണമെന്ന് അഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല കോളേജിലൊക്കെ ആണെങ്കിൽ ഫോട്ടോഗ്രാഫി മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ കോളേജിലുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഫോട്ടോഗ്രാഫി ഇടുന്ന ആൾക്ക് ഇത്ര രൂപ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോ മത്സരങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയുള്ള മത്സരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ കോളേജിലൊക്കെ ആണെങ്കിൽ ഈയിടെ ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോഗ്രാഫി മത്സരം ഞങ്ങളുടെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കോളേജിലെ തന്നെ ഏതെങ്കിലും നല്ലൊരു വ്യൂ പോയിൻറ് നമ്മൾ സജസ്റ്റ് ചെയ്ത് അത് അതിന് നമ്മൾ നേരത്തേ എടുത്ത് വെച്ചിട്ടുള്ളതാകാം അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുന്നതാകാം ഏതെങ്കിലുമൊരു ഫോട്ടോ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യണം അപ്പം അങ്ങനെ ഒരെണ്ണം ഈയിടെ ചെയ്തിരുന്നു അങ്ങനെ കുറേ കുറേ ഫോട്ടോസ് ഞാൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ടൂർ ഒക്കെ പോവുമ്പോഴത്തേക്കും നല്ല നല്ല വ്യൂ പോയിൻറ്സ് പിന്നെ ഈ പക്ഷികൾ മൃഗങ്ങൾ നമ്മൾ നമ്മടെ പ്രകൃതി തന്നെ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ത്രിൽ ആണ് ഓരോ ഓരോ വ്യൂ പോയിൻറ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ വെള്ളം ഒക്കെ മഴ പെയ്യുന്നത് പിന്നെ വെള്ളച്ചാട്ടം ഇതൊക്കെ നല്ല രസമല്ലേ അപ്പം അതൊക്കെ ഫോട്ടോ എടുക്കാനാണ് എനിക്ക് താല്പര്യം